പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയിലൂടെ പലപ്പോഴും നമുക്ക് ലോകത്തിൽ തന്നെ രണ്ട് വിശ്വാസങ്ങളുണ്ട് അതായത് ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതോടൊപ്പംതന്നെ പ്രാർത്ഥനയിലൂടെ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന മറ്റുള്ള ആൾക്കാരുമുണ്ട് അപ്പോള് ഇത് രണ്ടും ഏത് ഭാഗത്താണ് ശരിയാണന്നോ അല്ലെങ്കില് അതിനെ ന്യായീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്കല്ല നമ്മൾ പോകുന്നത് നമുക്ക് ഒരു പ്രാർത്ഥിക്കുമ്പോള് നമുക്ക് മനസ്സിനും ഒരു സുഖമുള്ള അവസ്ഥ പ്രത്യേകിച്ച് നമുക്കൊരു ശാന്തത കിട്ടുന്ന അവസ്ഥ അതാണ് യാഥാർത്ഥത്തില് പ്രാർത്ഥനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ ചിലര് ദീർഘദൂര നീണ്ട പ്രാർഥനകളില് സമയം ചെലവഴിക്കുമ്പോള് മറ്റ് ചിലര് ഹ്രസ്വ പ്രാർത്ഥനകളിലൂടെ സമയം കണ്ടത്താ സ അതിനുള്ള സമയം കണ്ടെത്തുന്നുണ്ട് അതോടൊപ്പംതന്നെ ആരാധനകള് ആരാധനകള് നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ചെ ഇതാണ് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആ നമ്മളെ അനുദിനം കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചവനായ ദൈവത്തിനെ നമ്മള് ആരാധന സമർപ്പിക്കുന്നത് പ്പഴ് ഈ ആരാധനയുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവ മഹത്വമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക അതായത് നിസ്സാരനായ മനുഷ്യൻ തൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് കൊണ്ട് ദൈവത്തെ ഒരു ശക്തിയായി കണ്ടു കൊണ്ട് ആ ശക്തിയെ പൂർണമായും ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെയും തങ്ങളുടെ സംവിധാനത്തെയും എല്ലാം ആ ദൈവത്തിൻ്റെ ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന ആരാ യാഥാർത്ഥത്തില് ആരാധന എന്ന് നമുക്ക് പറയാൻ പറ്റു പറയാൻ സാധിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ആരാധനയെ സംബന്ധിച്ചോളം സ് സ്തുതിപ്പുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നന്ദി പറച്ചിലുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആരാധനകള് നമ്മള് അനുഷ്ഠിച്ച് പോരുന്നുണ്ട് ചിലപ്പോള് നമ്മള് ആഹാരം പോലും കഴിക്കാതെ പിന്നെ വ്രതമെടുത്ത് കൊണ്ടൊക്കെ നമ്മള് ആരാധന നടത്തുന്നുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ മാനസിക അവസ്ഥയും ദൈവത്തോടുള്ള ഓരോരുത്തരുടെ ആഭിമുഖ്യവും ദൈവത്തോടുള്ള അവരുടെ അചഞ്ചലമായ കൂറുമൊക്കെ വ്യക്തമാകുന്ന തരത്തിലുള്ളതാണ് ഇങ്ങനെയുള്ളെ ആരാധനകൾ ലോകത്ത് തന്നെ വിവിധ മതങ്ങളുണ്ട് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരൂണ്ട് ഈ മതങ്ങളെ എല്ലാം മതങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കിയെടുക്കുക മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടുന്ന ആ രീതികളാണ് ഓരോ മതവും അ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോള് ആ മതത്തിൽ പെട്ട ആ വി വിശ്വാസികള് തങ്ങളുടെ ഇഷ്ട അ ദേവന്മാരുടെ പ്രീതിപ്പെടുത്താനായിട്ട് തങ്ങളുടെയൊക്കെ ഒക്കുന്ന രീതിയില് തങ്ങളുടെതായ ശൈലിയില് തങ്ങളുടേതായ അറിവിൻ്റെ പശ്ചാത്തലത്തില് തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തോട് നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് പല മതങ്ങളിലെയും വിശ്വാസികള് വച്ചു പുലർത്തുന്നത് അതോടൊപ്പം തന്നെ ന്ന പിന്നെ മറ്റ് ആരാധനകള് അതോടൊപ്പംതന്നെ ഓരോ പിന്നെ മതങ്ങൾക്കും അവരുടേതായ വ്യത്യസ്തമായ ആരാധനകള് നമുക്ക് ഉണ്ട് ആ ആരാധനകളാൽ എല്ലാം തന്നെ ല ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു മനുഷ്യന് ഒരു സ ഒരു സാമൂഹ്യ ഒരു യഥാർത്ഥമായൊരു ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ് പഴയ കാലത്തേ നമ്മുടെ ആർഷഭാരതത്തിൻ്റെ ഋഷി സങ്കൽപ്പങ്ങൾ എല്ലാം തന്നെ ഇത് തന്നെയായിരുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും സുഖമുള്ളവരായി കഴിയട്ടെ എല്ലാവരും നന്നായി ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അന്നത്തെ കാലങ്ങളില് മുനിമാര് തങ്ങളുടെ ആശ്രമങ്ങളില് അല്ലെങ്കില് ഗുഹകളിലിരുന്നുകൊണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി സ്വസ്ഥവും സമാധാനപരമായിട്ട് ഈ ലോകത്ത് സുഖത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു അതില്നിന്നുൾക്കൊണ്ടാണ് ആർഷ ഭാരത സംസ്കാരം തന്നെ നിലകൊള്ളുന്നത് അതിനെ പിന്തുടർന്നാണ് ഈ കേരളത്തി ഇന്ത്യയില് പല മതങ്ങളും രൂപപ്പെടുകയുണ്ടായി മതങ്ങളുടെ എല്ലാം തന്നെ ഇങ്ങനെയുള്ള ആരാധനകളിലൂടെയാണ് ഇങ്ങനെയുള്ള ആരാധനാ സംവിധാനങ്ങളിലൂടെയാണ് യാഥാർത്ഥത്തില് മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത് ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും ഈ ആരാധന നമ്മളെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആരാധനകളിലൂടെ ആണ് മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് പോകുന്നതും മനുഷ്യന് രണ്ടാമതൊരു ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തില് പൂർണ്ണതയോടെ എത്തണമെങ്കില് ഈ ദൈവത്തെ പൂർണ്ണമായും ആരാധിക്കണം എന്നുമൊക്കെ പറയുന്നത്